എൻ്റെ പേര് മെൽബി ഞാൻ ഒരു മൊബൈൽ റീചാർജ്ജുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു പ്ലാനിൻ്റെ റിട്ടേണിന് വേണ്ടിയിട്ടാണ് ഞാനീ ഇത് പറയുന്നത് അതായത് ഞാൻ കഴിഞ്ഞദിവസം പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൻ്റെ പ്ലാൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആദ്യം ഒന്ന് ഞാൻ ചെയ്തു ചെയ്തിട്ട് എനിക്ക് പ്ലാൻ കയറിയില്ല ഒരു അര മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു എനിക്ക് എന്നിട്ടും കയറിയില്ല അതിനുശേഷം ഞാൻ വീണ്ടും കയറിയില്ലല്ലോ അപ്പോളും കയറിയില്ലല്ലോ എന്നോർത്തിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൻ്റെ ചെയ്തു അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് രണ്ട് മെസ്സേജ്ജ് ഒന്നിച്ചാണ് വന്നത് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൻ്റെ വീതം രണ്ട് പ്രാവശ്യമായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ എനിക്കതിൻ്റെ വാല്യു കിട്ടുന്നതേയില്ല എനിക്ക് ഇരുപത്തിയെട്ട് ദിവസമേ ഒരു മാസമല്ലെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കോളും ഇതും കോളും നെറ്റും എനിക്ക് ഒരു മാസത്തേക്കേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ എൻ്റെ കൈയിൽ നിന്ന് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ എക്സ്ട്രാ പോയില്ലെ അപ്പം ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ എനിക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് ഞാന് പറയുന്നു എനിക്ക് എൻ്റെ അക്കൌണ്ട് നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ആ അക്കൗണ്ട് നമ്പറിലേക്ക് ആ പൈസ തിരിച്ച് റിട്ടേൺ ചെയ്യണം